കൃഷി ഉപജീവനമായി ഏറ്റെടുത്തവർക്ക് വളരെ അധികം കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്തെന്നാൽ കാര്യമായ പുരോഗതിയൊന്നും കാർഷികരംഗത്ത് ഉണ്ടാവുന്നില്ല മാത്രമല്ല കൃഷി ചെയ്തു ജീവിക്കുന്നവർ വളരെ ദുരിതത്തിലാണ് ഇന്നത്തെ അവസ്ഥ സാങ്കേതിക വിദ്യകൾ ഉയോഗിച്ച് കൃഷി നടത്താമെന്ന് വച്ചാൽ ഒരുപാട് കാശ് ചിലവാക്കി വേണം കൃഷി കാര്യങ്ങൾ നടത്താൻ സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള കാശ് ചിലവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുവാൻ പറ്റില്ല അതിനു പകരം ഗവൺമെൻ്റിൽ നിന്ന് തക്കതായ സഹായങ്ങൾ ലഭിച്ചാൽ കർഷകർക്ക് നല്ല രീതിയിൽ സാങ്കേതികമായ പല പദ്ധതികളും നടത്താൻ പറ്റും അതിൻ്റെ ഫലമായി നല്ല രീതിയിൽ വിളവുകൾ ഉണ്ടാക്കുവാനും പറ്റും പ്രധാനമായും നല്ല രീതിയിൽ സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച ഉദ്യോഗസ്ഥരും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരും കൃഷിഭവന് അത്യാവശ്യമാണ് ഭാരമുള്ള വിത്തുകൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റുന്ന പാറ്റലൈസറുകൾ കർഷകർക്ക് ഏതു സമയത്തും ആവശ്യങ്ങൾ ചോദിച്ചാൽ അതിന് അനുസരിച്ച് ജനങ്ങൾ നൽകുവാനോ ഫലപ്രദമായ കീട നിയന്ത്രണങ്ങളോ മറ്റ് കാർഷിക ആവശ്യങ്ങളും അതിന് ഒരു പരിഹാര മാർഗങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ അപ്പോൾ അപ്പോൾ നൽകേണ്ടതാണ് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിരളമാണ് നടക്കുന്നത് കാർഷിക പുരോഗതിക്കു വേണ്ടി പല പല പദ്ധതികളും ഗവൺമെൻ്റ് നടപ്പാക്കാറുണ്ട് പക്ഷേ അത് സാധാരണക്കാർക്ക് കൃഷിക്കാർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നില്ല അതിന് ഇടയിൽ കളിക്കുന്ന ചില ആൾക്കാർ അത് തട്ടിയെടുക്കുന്നു ചിലർക്ക് മാത്രം കിട്ടിയെന്ന് വരാം പല പല പദ്ധതികളും നടപ്പിലാക്കുന്നു എങ്കിലും അതിൻ്റെ ഒന്നും ഗുണ ഗുണഫലങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് സാധാരണ കർഷകർക്ക് സാധാരണ കർഷകർക്ക് അവർ ഉല്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല അതുകൂടാതെ തന്നെ നല്ല ഒരു കമ്പോളം ലഭിക്കുന്നില്ല അ അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി സാധനങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഇപ്പം അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിൽ വിലയിൽ വിലയ്ക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നത് അതുകൊണ്ട് കർഷകർക്കും അതിനും പ്രയോജനമില്ല നല്ല രീതിയിലുള്ള വിത്തുകൾ സാധാരണയായി കർഷകർക്ക് കിട്ടുന്നില്ല കൃഷിഭവനോളം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കർഷകർക്കു വേണ്ടി അത്യുല്പാദന ശേഷിയുള്ള നല്ല ഇനം വിത്തുകൾ നെൽ വിത്തായാലും പച്ചക്കറി വിത്തായാലും മറ്റ് നടീൽ വസ്തുക്കളായാലും നല്ല രീതിയിൽ കർഷകർക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് കൃഷിയെ നന്നായി സഹായിക്കും നെൽ വിത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ നെൽ വിത്ത് കൃഷി ഭവനിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ ശരിയായ രീതിയെല്ലാം എത്ര മാസം കൊണ്ട് വിളവെടുക്കാം എന്നും ഒരു ധാരണ കർഷകർക്ക് ഇല്ല അവർ അവർക്ക് അവിടെ എത്തി കിട്ടിയ വിത്തുകൾ കർഷകർക്ക് നൽകുന്നു കർഷകർ അത് അവരുടെ അവരുടെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അതിൻ്റെ അതിന് ഉല്പാദനവും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും കർഷകർ വ്യക്തമായിട്ട് അറിയുന്നില്ല അതിനാൽ തന്നെ നല്ല രീതിയിൽ വിള കിട്ടണമെന്നില്ല കിട്ടിയ വിളകൾക്ക് നല്ല മാർക്കറ്റും ഇല്ലാത്തതിനാൽ വളരെ കഷ്ടമാണ് കർഷകർക്ക് ഏതു തരം വിളകൾക്കും ഫലപ്രദമായി കീട ബാധ ഏൽക്കാൻ സാധ്യത ഉണ്ട് അതിന് അത്യാവശ്യമായ നല്ല രീതിയിലുള്ള ജൈവകീടനാശിനികൾ കർഷകർക്ക് ലഭിക്കേണ്ടതാണ് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അത് കർഷകർക്ക് ഗുണമേകും അത് കൃഷിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ പറ്റും എല്ലാ കർഷകർക്കും അവരവരുടെ വിളകൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും നല്ല നല്ല മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയണം അതിനു വേണ്ടി കർഷകർ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പല പല നല്ല കാര്യങ്ങൾ ചെയ്തും നല്ല സാങ്കേതിക വിദ്യകൾ ഉയോഗിച്ചു പല മെഷീനുകളും വാങ്ങിക്കുകയും നല്ല രീതിയിലുള്ള വിത്ത് വിത്തുകളും മറ്റും മറ്റും മറ്റ് വിളകളുടെ അറിവുകളിലും ലഭ്യമാകുകയും ചെയ്താൽ നല്ല രീതിയിൽ കൃഷി ഇറക്കാൻ പറ്റും ആദ്യം വേണ്ടത് കർഷക കൂട്ടായിമയാണ് പക്ഷേ ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല അവർ അവരവർ സ്വയം ചെയ്തു കടത്തിലേക്ക് നീങ്ങുകയാണ് സാധാരണ ചെയ്യുക പല നാളികേര കർഷകർ ആയാലും കർഷകർ ആയാലും നെൽ കർഷകർ ആയാലും റബ്ബർ കർഷകർ ആയാലും ആർക്കും തന്നെ നല്ല രീതിയിൽ വിളകൾ കിട്ടുന്നില്ല അതിന് അനുയോജ്യമായ മാർക്കറ്റും ലഭിക്കുന്നില്ല നാളികേര കർഷകർക്ക് വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് നില നിൽക്കുന്നത് തേങ്ങക്ക് തീരെ വിലയില്ല തേങ്ങ അതിൻ്റെ ചിലവ് കൂടി കൂടി വരികയാണ് രാസവളങ്ങളുടെ അമിതമായ അമിതമായ വില കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റു മറ്റു വളങ്ങൾ കിട്ടാനും ഇല്ല അതിനാൽ വളരെ ബുദ്ധിമുട്ടാണ് നല്ല രീതിയിലുള്ള വളങ്ങളൊന്നും കിട്ടുന്നില്ല ജൈവ രീതിലുള്ള വളങ്ങൾക്ക് അതിന് കൂടുതൽ കാശും കൊടുക്കണം അതിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നതുമില്ല അതിനാൽ തന്നെ കർഷകർക്ക് അത്യാവശ്യം വേണ്ടതായ കാർഷിക മറ്റ് അനുബന്ധ അനുബന്ധ ഉപകരണങ്ങൾ എത്ര പേർക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കുവാനും നല്ല രീതിയിൽ വിത്തും വിത്തും വളവും കൊടുക്കുവാനും കൃഷിഭവൻ കാര്യക്ഷമായി പ്രവർത്തിക്കേണ്ടതാണ്

കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർ യഥാർത്ഥ കർഷകരാണെന്ന് തിരിച്ചറിയുകയും വേണം ഒരു പാർട്ടിക്കാർ പറയുന്നത് അനുസരിച്ച് അവരുടെ പിറകെ പോയി പോയി ഇതാണ് കർഷകൻ ഇതാണ് നല്ല കർഷകനെന്ന് പറയാതെ ശരിയായ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നുണ്ടോ പശു പശു പശു വളർത്തുന്നുണ്ടോ പറമ്പും പാടവും ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയവരെ കിട്ടിയവരെ കൊണ്ടു പോയിട്ട് കൃഷി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കാര്യമില്ല യഥാർത്ഥ കർഷകരെ കണ്ടുപിടിക്കുകയും അവർക്കു വേണ്ട എല്ലാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നതാണ് ഓരോ കൃഷിഭവൻ്റെയും ധർമം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ കർഷകനെ കണ്ടുപിടിക്കാൻ മറ്റും കഴിയും അവരവർക്കും അവരവരുടേതായ എല്ലാ കാഴ്ച്ചപ്പാടുകളോടു കൂടി പ്രവർത്തിക്കണം കർഷകരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി കൃഷിഭവൻ നല്ല രീതിയിൽ പ്രവർത്തിക്കണം കൃഷിഭവൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ അത് കർഷകർക്കും സമൂഹത്തിനും വളരെ നല്ലതായിരിക്കും നല്ല നല്ല വിളകൾ ഉണ്ടാക്കുവാനും രാസ കീടനാശികൾ ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ ഉപയോഗിക്കാനും അത് നല്ല നമുക്ക് നമുക്കു തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ പറ്റുന്ന തരത്തിൽ കൈകാര്യം ചെയ്യുവാനും നമുക്ക് തന്നെ കഴിയണം അന്ന് കർഷകർക്ക് വളരെ പ്രയോജനമാവുകയും ചെയ്യും നാടിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണമാകും എല്ലാ കർഷകർക്കും സാമ്പത്തികവും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കു വേണ്ട അറിവുകളും നൽകുകയും വേണം ഇപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾക്ക് കൃഷിയിലേക്ക് തീരെ വരുന്നില്ല അവർക്കു വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കുകയും കൃഷിയിലേക്ക് യുവാക്കളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം അവർക്കു വേണ്ട പല പദ്ധതികളും ചെയ്തു കൊടുക്കുകയും സർക്കാർ തന്നെ മുൻകൈ എടുക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് അവർക്ക് വളരെ പ്രയോജനകരമായിരിക്കും അത് കൃഷിയിലേക്ക് പുതിയ പുതിയ യുവാക്കൾ വരികയും അവർക്ക് സാങ്കേതിക പരിജ്ഞാനം കൂടുതലാണ് മാത്രമല്ല ഗുണവും ഉല്പാദന ക്ഷമതയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നു യുവതി യുവാക്കൾക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ നല്ലതിന് നല്ല കാര്യക്ഷമമായി നടത്താൻ കാര്യക്ഷമമായി നടത്തുന്നതിനു വേണ്ടി യുവാക്കളുടെ സേവനം അതാവശ്യമാണ് അതിനാൽ ചെറുപ്പക്കാരായ യുവജനങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടു വരാൻ കർഷകർ മുന്നിട്ടെടുക്കുകയും അവർക്കു വേണ്ട എല്ലാ സംരക്ഷണം നൽകുകയും അവരെ കടങ്ങളിൽ പെടുത്താതെ എല്ലാ കാര്യങ്ങളും സബ്സിഡി തന്നെ ചെയ്തു കൊടുത്ത് രാജ്യത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യണം അത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി കൃഷിക്ക് നല്ല വരുമാനവും കൃഷിക്ക് നല്ല ഒരു പ്രയോജനമുണ്ടായി തീരും അത് നാടിന് ഐശ്വര്യവും സമ്പൽസമൃദ്ധിയും ഉണ്ടാകും ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ് ഒരു യഥാർത്ഥ സർക്കാർ ചെയ്യേണ്ടത് അത് നാടിന് ഐശ്വര്യവും സമാധാനവും ഉണ്ടാക്കുകയും ചെയ്യും നാടിന് സമാധാനം ഉണ്ടാക്കുകയും കൃഷി നല്ല രീതിയിൽ വളരാനും സഹായിക്കും